നമ്മുടെ പിന്നെ കേരളത്തിൽ ഇപ്പോൾ കൊറോണ വന്ന് കഴിഞ്ഞ ശേഷം പല വിധ രോഗങ്ങൾ കൊണ്ട് സാധാരണക്കാരും എല്ലാവരും ബുദ്ധിമുട്ടുന്നുണ്ട് പകർച്ചവ്യാധി അതിലൊരു മുഖ്യ ഇതാണ് ഇപ്പം കണ്ടില്ലേ നമ്മുടെ പതിനാല് ജില്ലയിൽ നമ്മുടെ നാട് കോഴിക്കോടാണ് നിപ്പ വീണ്ടും വീണ്ടും സ്ഥിതികരിച്ചു നമുക്ക് വീണ്ടും ലോക്ഡോണാണ് പുറത്ത് ഇറങ്ങാൻ പറ്റില്ല മാസ്ക് നിർബന്ധം ആക്കി അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് പനിയും കാര്യങ്ങളുമാണ് നിപ്പയില് എങ്ങനെയാണ് വീണ്ടും നിപ്പ വന്നത് എന്നറിയില്ല ഇപ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ ഇതാണ് നമ്മള് പണ്ടത്തെ പോലെ ടെസ്റ്റ് ചെയ്തിട്ടാണ് നിപ്പ കൺഫോം ആകുന്നത് പണ്ട് രണ്ട് വർഷം മുൻപ്പ് വീണ്ടും നിപ്പ വന്ന് കുറെ പേര് മരിച്ച് പോകേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് അപ്പം പോഷക കുറവ് കൊണ്ടാണോ വവ്വാലിൽ നിന്നാണോ നിപ്പ വരുന്നത് എന്ന് നമുക്ക് അത് പിന്നെ ഫ്ലൂ അങ്ങനെ കുറയെ രോഗങ്ങള് പകർച്ചവ്യാധി പനികൾ എലിൻ്റെ കൊണ്ടുള്ള രോഗങ്ങള് ചൂട് കാരണം ഉള്ള രോഗങ്ങള് പല കാര്യങ്ങളും പിന്നെ ഉണ്ടാവാറുണ്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മളെ ബുദ്ധിമുട്ടുന്നത് നിപ്പ കാരണമാണ്